യോഗപരിശീലകർക്ക് നിർബന്ധമായും സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ഒരു നല്ല പഠന പഠനം നടത്തി നല്ല രീതിയിലതിനെ പ്രാക്റ്റീസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കു മാത്രമല്ലെ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളു അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കു വേണ്ടി ആൾക്കാർക്ക് മാത്രമേ ഈ യോഗ അറിയാത്ത ആൾക്കാരെ യോഗ പഠിപ്പിക്കാൻ പറ്റുകയുള്ളു അപ്പം അതു കൊണ്ട് യോഗാ പരിശീലനം നടത്തുന്ന ആൾക്കാർക്ക് പരിശീലനം നടത്തുന്നതിനു വേണ്ടിയിട്ടും അതേപോലെ തന്നെ പഠിച്ചിരുന്നു എന്നുള്ളതിനു വേണ്ടിയിട്ടും സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കേണ്ടതാണ് രണ്ടു കാര്യത്തിനും കൊടുക്കണം നടത്താൻ വേണ്ടിയിട്ടും പഠിച്ചത് ജയിച്ചു എന്നുള്ളതിനു വേണ്ടിയിട്ടും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ് നല്ല രീതിയിൽ സർട്ടിഫിക്കറ്റിനേ മെ പഠിച്ചു ഇറങ്ങി ഒരാൾക്കു മാത്രമേ ഒന്ന് യോഗയെക്കുറിച്ച് അറിയാൻ വയ്യാത്തൊരാളിനെ ആളിനെ യോഗയെക്കുറിച്ചു പഠിപ്പിക്കാൻ പറ്റുകയുള്ളു തെറ്റായ രീതിയിലുള്ള യോഗാഭ്യാസങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ വരുന്ന ആളിന് ആരോഗ്യപ്രശ്നങ്ങളുണ്ടാകും അതുമൂലം അതിൻ്റെ ഭാവി തന്നെ അല്ലെങ്കിലാണ് പഠിക്കാൻ വരുന്ന ആളിൻ്റെ ഭാവി തന്നെ ദോഷം അ അത് കുഴപ്പത്തിലാകുന്ന രീതിയിലേക്കു പോകാൻ സാദ്ധ്യതയുണ്ട്